ഞാൻ ഇഷ്ടപ്പെട്ട പത്രത്തിനെ കുറിച്ചാണ് പറയണത് പത്രം എന്ന് പറയുമ്പോഴേക്കും മലയാള മനോരമയാണ് ഇഷ്ടം ബാക്കിയുള്ള പത്രങ്ങളിൽ നിന്ന് അതിൻ്റെ അതിൻ്റെ സ്ട്രക്ചർ ആണെന്ന് തോന്നുന്നു അട്രാക്ട് ചെയ്തത് എന്താ അതിൽ ഒരുപാട് ഒരുപാട് എന്താ എക്സ്പ്ലോർ ചെയ്യണ രീതിയിലുള്ള കുറച്ച് വാർത്തകളൊക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല പിന്നെ അതിൻ്റെ ഫ്രണ്ട് പേജൊക്കെ ഭയങ്കര ഡിസൈന്ഡ് ആണ് പിന്നെ ഒരുപാട് ചിത്രങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ റിയൽ ടൈമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ എക്സ്പ്ലൈൻ ചെയ്യണം പിന്നെ ഒരു എന്താപറയുക കോട്സ് ഉണ്ടാവില്ലേ അങ്ങനത്തെ കുറേ കോട്സ്കളുണ്ടാവും പിന്നെ അതുപോലത്തെ എന്താ കുറേ സ്റ്റോറീസുകൾ ഉണ്ടാവും എന്താ ഇപ്പോൾ പറയുക ഒരു ഗുണപാഠ കഥകളെന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ കുറേ സ്റ്റോറീസ് ഉണ്ടാവും ചെറിയ കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് സ്റ്റോറീസ് അവർക്ക് പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്ന കുറേ കോട്സ്കൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാവും ഇന്നത് ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് സ്റ്റോറീസുകളൊക്കെ ഉണ്ടാവും പിന്നെ അതിൽ ഞായറാഴ്ചത്തെ പേപ്പറിലാണെങ്കിൽ സ്പെഷ്യലായിട്ട് വേറൊരു പേപ്പറുണ്ടാവും അതിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യത്തെ കുറിച്ചായിട്ട് എക്സ്പ്ലോർ ചെയ്ത് പറയണുണ്ടാവും പിന്നെ വാർത്തകളൊക്കെ ഭയങ്കര ക്ലാരിറ്റിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മനോരമ ചാനലിൽ ന്യൂസ് ആയാലും ആ ചാനലിൽ ആണെനിക്ക് ഏറ്റവും ഇഷ്ടം അവരുടെ പത്രം തന്നെയാണ് വായിക്കുകയും ചെയ്യുന്നത് ഭയങ്കര അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട് ബാക്കിയുള്ള പത്രങ്ങൾ കാണുമ്പോൾ തന്നെ എന്താ പറയുക കംപയർ ചെയ്യുമ്പോൾ കളർ ഫുള്ളായിട്ടുള്ള ഇമേജസ് കുറവാണ് അത് പിന്നെ ഒരട്രാക്ഷൻൻ്റെ ഒരു ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഇതാണല്ലോ കളർ ഫുൾ ഇമേജസ് എന്ന് പറയണത് അത് കൂടുതലായിട്ടും ഞാൻ മനോരമയിലാണ് കണ്ടിട്ടുള്ളത് ബാക്കി പേപ്പറിലങ്ങനെ കളർ ഫുൾ ഇമേജസ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്തായാലും ചെറുപ്പം മുതലേ വായിച്ചുകൊണ്ടിരിക്കണത് മനോരമ പേപ്പറായതുകൊണ്ട് അതിനോടാണ് താല്പര്യം കൂടുതൽ